ആ ഹലോ ആ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങള് നോക്കാനായിരുന്നു ആ അത് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് ആ ഓക്കേ

ഇല്ല ആൻഡ്രോയിടൊന്നും വേണ്ട നമുക്ക് സാധാരണ ഈ ടിവി മതി എത്ര റേയ്റ്റ് അറുപതിൻ്റെ നോക്കാം അറുപത്തഞ്ചിഞ്ചിൻ്റെ

ഓ ഇത് നല്ല കമ്പനിയാണല്ലേ

ഓക്കേ ഓക്കേ ആ അതെടുക്കാം എന്നാൽ അതെടുക്കാം ഓക്കേ

ആ ഇപ്പഴത്തെ മോഡൽ ഉള്ള ഡബിൾ ഡോർ തന്നെ മതി ആ ഡബിൾ ആ നമുക്ക് ഡബിൾ ഡോർ തന്നെ നോക്കാം ആണോ അതിപ്പോൾ ഏത് കളറായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് നോക്കട്ടെ

എന്നാൽ സിൽവർ തന്നെ മതി ആ എൽ ജിൻറ്റെ നല്ല കമ്പനിയല്ലേ എന്നാല് ആണോ നമുക്ക് എൽ ജി നോക്കിയാൽ മതി ആ ഡബിൾ ഡോറല്ലേ ഓക്കേ ആണോ ആ ഓക്കേ എന്നാൽ അത് മതി നമുക്കിനി ആദ്യം ഏ സി നോക്കാം എന്നിട്ട് വാഷിംഗ് മെഷീൻ നോക്കാം

ഓ ഇതിലേതാ കുറച്ചും കൂടി നല്ലത്

ആ പക്ഷേ ഇതിന് റേയറ്റൊക്കെ എത്ര വരും ആണോ ഇരുപത്തയ്യായിരം അല്ലെ ഓക്കേ ഇത് നമ്മള് നിങ്ങള് തന്നെ വന്ന് ഫിറ്റ് ചെയ്ത് തരുമല്ലൊ അല്ലെ

വന്നു നമ്മള് കൊണ്ട് പോകണം നിങ്ങള് ഇൻസ്റ്റാള് മാത്രം ചെയ്ത് തരുവോ ആ ഓ ഓക്കേ ആ ഓക്കേ ആ ഓക്കേ എക്സ്ട്രാ ചാർജ് നമ്മള് കൊടുക്ക് ഞങ്ങള് കൊടുക്കണം അല്ലേ വണ്ടി വാടക ആ ആ ഓക്കേ വേണ്ട വേണ്ട ഞങ്ങള് കൊണ്ടുപോയിട്ട് നിങ്ങള് ഇൻസ്റ്റാള് ചെയ്യുക മാത്രം ചെയ്താൽ മതി അല്ല ഞങ്ങള് തന്നെ കൊണ്ട് വെക്കാം നിങ്ങള് ചെയ്ത് തന്നാൽ മാത്രം മതി

ഇതു മതി വാ ആ മതി ഇല്ല വാഷിംഗ് മെഷീൻ ഞങ്ങള് ഇപ്പൊൾ നോക്കണ്ട ഇത് മതി നോക്കണ്ട ആ മതി ആ എടുക്ക്

ഓക്കേ താങ്ക് യൂ

ഓക്കേ ശരി

അല്ല ആ ഗൂഗിൾ പേ